ഇപ്പോൾ ചിത്രരചനയിൽ തന്നെ വരയ്ക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇപ്പം എനിക്ക് വരയ്ക്കുമ്പോൾ ഈ ഫെയ്സ് വരയ്ക്കാനൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഓരോരുത്തരുടെയും ഫേയ്സെന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻസായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഘടന വരച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് സോ അത് പരിഹരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് യൂട്യൂബിലും ഇങ്ങനെ വീഡിയോസൊക്കെ കാണും സ്കെച്ചിന്റെ ഈ ഫേസ് വരയ്ക്കുന്നതിനും മറ്റ് എളുപ്പവഴികൾ ഇപ്പം ഒരു പിക്ചർ കണ്ടാൽ അതെങ്ങനെ വരയ്ക്കാം അങ്ങനെയൊക്കെ വെച്ചിട്ട് യൂട്യൂബിലും വീഡിയോകളൊക്കെ കണ്ട് അത് വരയ്ക്കാൻ പിൻ ശ്രമിക്കാറുണ്ട് പിന്നെ ടൈം കിട്ടുമ്പോഴൊക്കെ അതിങ്ങനെ വരച്ച് വരച്ച് വരച്ചു നോക്കും ഒരു ഒരു ഫോട്ടോ എടുത്ത് അതിൽ ആ ഫെയ്സ് അതേപോലെ തന്നെ വരയ്ക്കാൻ പറ്റുമോയെന്ന് ഇങ്ങനെ വരച്ച് നോക്കിയൊക്കെ ആയിരിക്കും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റിയെടുക്കാൻ ചെയ്യുന്നത് പിന്നേ എറ്റവും കൂടുതൽ നമ്മൾ പരിശീലനങ്ങൾ നടത്തുക നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോളായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ നന്നായിട്ടാകുക സൊ നമ്മൾ ഹാഡ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് റിസൾട്ടും കിട്ടും അങ്ങനെയൊക്കെയായിരിക്കും അങ്ങനെയാണ് ചിത്ര രചനയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നത്